വളരെ പ്രശസ്തമായ പൈതൃക സ്ഥലങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് ഇന്ത്യ അവിടെ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള പൈതൃക സ്ഥലങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടവയാണ് മൈസൂർ പാലസ് മീനാക്ഷി അമ്മൻ ടെമ്പിൾ മദുരൈ താജ് മഹൽ ആഗ്ര ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ പത്മനാഭ സ്വാമി ടെമ്പിൾ തിരുവനന്തപുരം ഹവാ മഹൽ രാജസ്ഥാൻ ഗോൾഡൻ ടെമ്പിൾ ഛത്രപതി ശിവാജി മഹാരാജാ ടെർമിനസ് മുംബൈ ഹമ്പി ലോട്ടസ് ടെമ്പിൾ കൊണാർക് സൺ ടെമ്പിൾ ഒഡീഷ ബേക്കൽ ഫോർട്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഇതൊക്കെ തന്നെയും ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പൈതൃക സ്ഥലങ്ങൾക്ക് ഉദാഹരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് താജ് മഹൽ പ്രതിദിനം തന്നെ അനേകായിരം വിനോദ സഞ്ചാരികൾ വിദേശത്ത് നിന്നും ഇന്ത്യയ്ക്കകത്ത് നിന്നായാലും എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് താജ് മഹൽ ലോക അൽഭുതങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് താജ് മഹൽ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അതിൻ്റെ രൂപകൽപ്പന നിർവ്വഹിച്ചിട്ടുള്ളത് വളരെ പ്രശസ്തവും പ്രാചീനവുമായിട്ടുള്ള താജ് മഹലിൻ്റെ രൂപകൽപ്പന വളരെ വർഷങ്ങൾക്ക് മുന്നെ തന്നെ താജ്മഹാൻ ചക് താജ് അല്ല ഷാജഹാൻ ചക്രവർത്തി നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസിൻ്റെ സ്മരണയ്ക്കായി താജ് മഹൽ പണി കഴിപ്പിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ മീനാക്ഷിയമ്മൻ ടെമ്പിൾ മദുരയിലെ ധാരാളം ഭക്തർ എത്തിച്ചേരുന്ന ഒരു പൈതൃക സ്ഥലമാണ് മീനക്ഷിയമ്മൻ ടെമ്പിൾ മൈസൂർ പാലസ് മൈസൂരിലെ കർണാടകയിലെ മൈസൂരിലെ വളരെ പ്രശസ്തവും സുന്ദരവുമായൊരു കൊട്ടാര സമുച്ചയമാണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബെയിലെ ഇന്ത്യയുടെ ഇന്ത്യയെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നൊരു പൈതൃക സ്ഥലമാണത് ഹവാ മഹൽ രാജസ്ഥാൻ ബിഗ് അനേകം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നൊരു വളരെ പ്രശസ്തവും സുന്ദരവുമായിട്ടുള്ളൊരു കൊട്ടാര സമുച്ചയമാണത് ഹമ്പി കേരള ഇന്ത്യയിലെ വളരെ പ്രാചീനവും പ്രശസ്തവുമായൊരു നഗരമാണ് ഇന്നും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട് അത് തന്നെ അതി അതിലെ കൽമണ്ഡപങ്ങളും മറ്റും പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ ഇന്നും സൂക്ഷിച്ച് പോകുന്നുണ്ട് അതൊരു വളരെ പൈതൃകമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യയിലെ ലോട്ടസ് ടെമ്പിൾ അതുപോലെ തന്നെ കൊണാർക് സൺ ടെമ്പിൾ ഒഡീഷ ഇവയൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ടും സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന പ്രാചീനമായ സ്ഥലങ്ങളാണ് കേരളത്തിലേക്ക് വരുകയാണെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം വളരെ വർഷങ്ങൾക്ക് മുന്നെ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ അതിസമ്പന്നമായ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം അതിൻ്റെ രൂപകൽപ്പന വളരെ വിശിഷ്ടമായതും സഞ്ചാരികൾക്കും ഭക്തർക്കും വളരെ ഇഷ്ടമുള്ളതുമായുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു അ ആർക്കിടെക്ച്ചർ ആണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമായാലും പലതരത്തിലുള്ള ചിത്രീകരണത്തിനും സിനിമകളിലും എട് എടുത്തിട്ടുള്ളതായും വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇന്ത്യയിലെ പല സിനിമകൾക്കും ഒരു പ്രധാന ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുള്ളതും ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അതുപോലെ ബേക്കൽ ഫോർട്ട് വളരെ പ്രശസ്തമായും പ്രാചീനമായതുമായൊരു സ്ഥലമാണ് അങ്ങനെ ധാരാളം പൈതൃക സ്ഥലങ്ങളുള്ള പൈതൃക സ്ഥലങ്ങളാൽ സമ്പന്നമായൊരു പ്രദേശമാണ് ഇന്ത്യ